ഹലോ ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി അല്ലേ ഇത് ഞാൻ ഹെൽത്ത് റെംബേഴസ്മെൻറിൻ്റെ കെസായിട്ട് വിളിച്ചതാ കേസ് വിളിച്ചതാ എനിക്കത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ എന്തൊക്കെയാ ആവശ്യങ്ങളാ വേണ്ടി വരിക ഇത് ഓൺലൈനായി ചെയ്യാൻ പറ്റുമോ അതോ രണ്ട് ദിവസംകൊണ്ട് ചെയ്ത് കിട്ടുമോ അതോ കുറേ ടൈമ് പിടിക്കുമോ ചെയ്യാൻ എനിക്കെൻ്റെ വിവരങ്ങളൊന്ന് പറഞ്ഞ് തരാമോ പിന്നെ അത് റെഡി ആായാൽ വേഗം കാശുമായി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇത്രയും പെട്ടെന്ന് കിട്ടുമോ ഇതൊക്കെ എന്നറിയാനായിരുന്നു പിന്നെ അതുപോലെ ഏ ഇത് ചെയ്യാൻ എന്തൊക്കെ പ്രൂഫുകളാ വേണ്ടത് നമ്മൾ ആധാറോ ആ ഐഡൻഡിറ്റി കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വേണോ പിന്നെ ഞാനിതുമായിട്ട് ഏത് അക്ഷയയിലാ പോകേണ്ടത് അക്ഷയയിലാണോ പോവേണ്ടത് അതോ ഫോണ് വഴി സൈറ്റ് വഴി ചെയ്യാനുള്ളതാണോ അത് ഇതൊക്കെ ഒന്ന് അറിയാനായിരുന്നു നമ്മൾ ഫോണ് വഴി ഇപ്പോൾ ഉള്ളത് ഓൺലൈനിലായി ചെയ്യാൻ ഏതെങ്കിലും സൈറ്റ് ഉണ്ടോ അതോ അക്ഷയയിൽ തന്നെ പോയി ചെയ്യണോ അക്ഷയയിൽ പോയി ചെയ്യണമെങ്കിൽ അതിന് പ്രൂഫും കാര്യങ്ങളും ഒന്ന് പറഞ്ഞുതരാമോ അതുപോലെ ഓൺലൈനിലായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രൂഫും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ ഇത് പെട്ടെന്ന് കിട്ടുമോ അതോ കുറേ ടൈമ് പിടിക്കുമോ